ഞാനെന്റെ വീട്ടാവശ്യത്തിനാണ് തയ്ക്കുന്നെ അതില് നിന്ന് പണമൊന്നും എന്റെ ഒരു ഹോബിയാണ് എക്സ്ട്രാ സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാന് സ്റ്റിച്ച് ചെയ്യും അല്ലാതെ പണത്തിനുവേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോള് കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ച് ചെയ്യാന് പറ്റുന്നില്ല ഈ പറഞ്ഞ മാതിരി സ്റ്റിച്ച് കൂടുതലായപ്പോള് കഴുത്തിനും കൈക്കും ഒക്കെ ഒരു വേദനയുണ്ട് അത് കാരണം ഇപ്പോള് സ്റ്റിച്ചിങ് വളരെ കുറവാണ് പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊന്നുമിപ്പോള് നോക്കുന്നില്ല അത് കാരണം വലിയ സ്റ്റിച്ചിങ്ങില്ലെന്നു തന്നെ പറയാം ചെറിയ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങുമായിട്ടങ്ങനെ മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നു